ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കത്തിയാണ് അപ്പോൾ കത്തീനെക്കുറിച്ച് പറയുവാനാണെങ്കില് ഒരുപാടുണ്ട് കാരണം കാരണം നമ്മള് എന്ത് കാര്യത്തിനും ഇപ്പോൾ അടുക്കളേലാണെങ്കിലും നമ്മള് പുറം പണിക്കാണങ്കിലും എല്ലാ കാര്യത്തിലും നമ്മള് കത്തിയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ കത്തി കൊണ്ട് നമ്മള് മുറിക്കാൻ ഇപ്പം ഒന്ന് ഉള്ളി അരിയാനാണെങ്കിലും തക്കാളി അരിയാനാണെങ്കിലും പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് കൂടുതലായിട്ടും കത്തിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ കത്തീൻ്റെ ഒരു ഉപയോഗം എന്താന്ന് വച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ഒരു മരം വെട്ടണം മരം വെട്ടണമെങ്കില് ഒരു കമ്പ് വെട്ടണമെങ്കിൽ പോലും നമുക്ക് കത്തിയും കാര്യങ്ങളുമൊക്കെയുണ്ട് ഒരു മരം വെട്ടണമെങ്കിൽ നമ്മള് കൂടുതലായിട്ടും ഒരു വാക്കത്തിയാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ പല തരം കത്തികള് കാര്യങ്ങളൊക്കെയുണ്ട് അതായത് ചെറിയ പിച്ചാത്തി മുതല് വലിയ അരിവാള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിപ്പം കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മള് കൂടുതലായിട്ടും ഉണ്ടാക്കുന്നതാണ് അതായത് ഇവിടുത്തെ കൊല്ലപ്പണിക്കാരാണ് കൂടുതലായിട്ടും കത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അവരുടെ അടുത്ത് നിന്നാണ് കൂടുതലായിട്ടും വാങ്ങുന്നത് ഇത് ഇടയ്ക്കിടയ്ക്ക് ഒട്ടിക്കാനും കാര്യങ്ങൾക്കൊക്കെ നമ്മള് കൊണ്ട് പോകണം അപ്പോൾ നല്ലൊരു സാധനാണ് ഈ കത്തി എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് എൻറടുത്തു എനിക്ക് നല്ലൊരു ഉപയോഗവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്